കൃഷിയെക്കുറിച്ച് പുതിയ തലമുറയോട് എനിക്ക് നിർദേശിക്കാനുള്ളത് കൃഷി എന്നുപറയുന്നത് നമ്മുടെ ഇന്ത്യാ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതല് ആളുകൾ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കാർഷിക മേഖല എന്നു പറയുന്നത് ഇത് മറ്റെന്ത് ജോലി ഉണ്ടെങ്കിൽ പോലും കാർഷിക മേഖല എന്ന് പറയുന്നത് ഏറ്റവും മുൻപന്തിയിൽ ഇരിക്കേണ്ട മേഖല തന്നെയാണ് അപ്പോള് ഇതിനെ പ്രമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോള് കൂടുതൽ ആളുകൾക്ക് കാർഷിക മേഖലയിലേക്ക് സാങ്കേതികവിദ്യകളുപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലയിലേക്ക് ആളുകൾ ആകർഷിച്ചുവരണം അതുപോലെതന്നെ ഈ ഒരു മേഖലയെ നമുക്ക് നമ്മളെന്നും പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു രംഗമാണ് കാർഷിക മേഖലയുടെ തകർച്ചയും കർഷക ആത്മഹത്യയും ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുതുതലമുറ പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക വിപണനവും കൃഷി രീതികളൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഇവരെ പ്രമോട്ട് ചെയ്യണം ഇവരെ മുൻപന്തിയിലേക്കെത്തിക്കണം നല്ല നല്ല ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ സൗകര്യമാണുള്ളത് ഒരു കർഷകർ അല്ലെങ്കിൽ കാർഷികം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഏരിയയാണ് എന്നുള്ളത് ഇവരെ മനസിലാക്കിക്കൊടുത്തുകൊണ്ട് ഇതിനെ പ്രമോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം